പണ്ടൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ ചെറിയ ടിന്നിന്റകത്താണ് ടൂണ മീൻ ചെറിയ പീസായിട്ട് കിട്ടികൊണ്ടിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ചൂണ്ട ഇട്ടപ്പോളെനിക്ക് ടൂണേനേ നേരിട്ട് കിട്ടി അപ്പോളെൻ്റെ സന്തോഷം വളരെ വലുതായിരുന്നു ഇതിന് മാർക്കറ്റിൽ വലിയ പൈസ ഒരുപാട് പൈസ ട മൂല്യമുള്ള മീനാണ് ഒരുപാടൗഷധ ഗുണങ്ങളുള്ള മീനാണ് പിന്നെ ഒരുപാട് മലയാളത്തിലിതിനെ ചൂര എന്നാണ് വിളിക്കുന്നത് ഈ മീനുകളെ ഭയങ്കര ഡിമാന്റുള്ള മീനാണ് ഈ മീന് ലോകത്തെല്ലാർ എല്ലായിടത്തും തന്നെ ഈ മീനുകൾക്ക് ഭയങ്കര ഡിമാന്റാണ് മലയാളികൾ ഇതിനെ ചൂര എന്നാണ് വിളിക്കുന്നത് ജപ്പാനാണ് ചൂരയുടെ ഏറ്റവും വലിയ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിലടക്കം നിരവധി രാജ്യങ്ങൾ ചൂര കയറ്റുമതി ചെയ്ത് വിടുന്നുണ്ട് വർധിച്ച് വരുന്ന ഡിമാന്റൊക്കെ കൊണ്ട് തന്നെയാണ് പിന്നെ ഫ്രഷായിട്ടുള്ള മീനുകളെ ഞാനിപ്പോളാദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഫ്രഷായിട്ടുള്ള മീനെ സാധാരണ ഇത് ഇങ്ങനെ സംസ്കരിച്ചുള്ള വിഭവത്തിലാണ് മീനുകളെ കണ്ടിട്ടുള്ളത് ഉപ്പിലിട്ടതും വിനാഗിരി ഉപയോഗിച്ച് ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെയുള്ള മീനുകളെ നേരിട്ട് കണ്ടപ്പോളെനിക്കതിനെ വളർത്താനുള്ളൊരു വളരെ കൗതുകം തോന്നി വെള്ളത്തിലിട്ടപ്പോൾ ജീവനോടെ കയ്യിൽ കിട്ടിയപ്പോളുള്ള സന്തോഷവും ഇതൊക്കെ വളരെ വലുതായിരുന്നു